എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് കുടിവെള്ളത്തിനാണ് നമ്മുടെ ഇവിടെ ജില്ലയിൽ കുടിവെള്ള ക്ഷാമംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം അതിരൂക്ഷമാണ് എന്തുപറയാൻ ഒരു പൈപ്പ് പൊട്ടി കിടന്നുകഴിഞ്ഞാൽ അതു റിപ്പയർ ചെയ്യാൻ പോലും അധികാരികൾക്ക് സമയമില്ല നമ്മളത് വിളിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ വെറുതെ വെള്ളം പാഴായിപ്പോവുകയാണ് അതു റിപ്പയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിലത് വേറൊരാൾക്ക് ഉപ ഉപകാരപ്പെടുന്നോന്ന് ചിന്തിക്കുവാനോ നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ വിചാരിക്കുന്നില്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വെള്ളം കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും ഈ മരങ്ങളുടെ കുറവ് ലഭ്യതകാരണം മഴ ലഭ്യതക്കുറവാണ് അതുമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്നുള്ള മഴയാണ് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള ചാൻസസ് വളരെ കുറവാണ് അതുകൊണ്ട് ജലസ്രോതസ്സു കിണർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെള്ളം നേരത്തെ വറ്റിപ്പോകാനും അതുകൊണ്ടു നമുക്ക് കിണറിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത് അതുകൊണ്ടു നമുക്ക് കുടിവെള്ള ക്ഷാമം ശരിക്കും പറഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുടിവെള്ള ക്ഷാമം തന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട അധികാരികൾ അതിനുവേണ്ട കാര്യങ്ങൾ എല്ലായിടത്തും വെള്ളം ഇല്ലാത്തിടത്ത് എത്തിച്ചേരാൻ അതുപോലെതന്നെ ഇതുപോലെയുള്ള പൈപ്പ് പൊട്ടലുപോലുള്ള പ്രശ്നങ്ങൾ എത്രേം പെട്ടെന്ന് പരിഹരിച്ചു അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് കുടിവെള്ളം എല്ലാവർക്കും എത്തി എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം